ഹലോ ട്രാവൽ ഏജൻസി അല്ലേ ഞങ്ങൾ ഇന്ന് ഒരു വിനോദസഞ്ചാരത്തിന് പോവാനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഡ്രൈവർ ഇതുവരെ വന്നില്ല ഞങ്ങൾക്ക് കോവളത്തായിരുന്നു പോവേണ്ടത് എത്ര മണിക്കൂർ യാത്ര ചെയ്താലാണ് അവിടെ ചെല്ലുന്നത് അതിരാവിലെ പുറപ്പെട്ടാലല്ലേ അവിടെ ചെല്ലാൻ പറ്റുള്ളൂ നിങ്ങളുടെ ഡ്രൈവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒക്കെ പെരുമാറുന്നത് ഫോൺ എത്ര തവണ വിളിച്ചിട്ടും ഡ്രൈവർ ഫോൺ എടുക്കുന്നില്ല ഒന്നല്ലെങ്കിൽ താമസിക്കുമെങ്കിൽ അയാൾക്ക് ഒന്ന് വിളിച്ച് പറഞ്ഞുകൂടേ താമസിക്കും വരാനായിട്ട് വേറെ ആരെ എങ്കിലും നോക്കാനായിട്ട് ഞങ്ങൾ കുടുമ്പം മുഴുവൻ അങ്ങോട്ടേക്ക് പോകാനായിട്ട് അതിരാവിലെ തന്നെ എഴുന്നേറ്റ് തയ്യാറായിട്ട് ഇരിക്കുവാണ് ഇങ്ങനെ കാര്യക്ഷമതയില്ലാത്ത ഒരു ട്രാവൽ ഏജന്സി ആണോ നിങ്ങളുടേത് നിങ്ങള്ക്ക് ഒരു കാര്യം ഏറ്റെടുത്താൽ അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് അറിയില്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ട്രാവൽ ഏജൻസി ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പൈസ തന്ന് ബുക്ക് ചെയ്യുന്നത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് സമയത്തിന് അവിടെ ചെല്ലാനായിട്ടാണ് അല്ലാതെ നിങ്ങളുടെ സൗകര്യത്തിനല്ല ആൾക്കാരെ വിടേണ്ടത് എത്രയും പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ വരാൻ പറയുക ഇല്ലെങ്കിൽ ഞങ്ങൾ വേറെ വണ്ടി ബുക്ക് ചെയ്തിട്ട് പോകും